ഇവിടെ ഞങ്ങളുടെ പ്രദേശത്തെ വിനോദ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് ഇവിടെ ലൈബ്രറിയിൽ ഞായറാഴ്ച്ച ദിവസങ്ങളിലൊക്കെ എല്ലാർക്കും പൊതുവേ അവധിയുള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച്ച ദിവസം അപ്പോഴിവിടെ വായനാ മത്സരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവരും കൂടിയിരുന്ന് ചെസ്സ് ക്യാരംസ് അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഏർപ്പെടാറുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഈ ഓണമൊക്കെ വരുമ്പോഴാണ് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഓരോ വിനോദ പരിപാടികളായിട്ട് ഏർപ്പെടാറുള്ളത് ഇപ്പം ഓണം വന്നു കഴിഞ്ഞാൽ രണ്ടും മൂന്നും രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികളാണ് ഇവിടെ ഈ എന്താണ് ആൾക്കാർ അറേഞ്ച് ചെയ്യുക ലൈബ്രറികളും ക്ലബ്ബുകളും എല്ലാം കൂടി ചേർന്നായിരിക്കും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഓണം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കളികളുണ്ടാകും ഇപ്പം പ്രായ ഭേദമെന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കും ഈ പറയുമ്പോലെ എന്താ മിഠായി പെറുക്കൽ സുന്ദരിക്ക് പൊട്ട് തൊടൽ അങ്ങനെ ഒരുപാട് കളികൾ അങ്ങനെ നമ്മൾ ഒരു നാട്ടിൽ എല്ലാവരും ജാതി മത ഭേദമെന്യേ അല്ലെങ്കിൽ പ്രായ ഭേദമില്ലാതെ എല്ലാവരും അങ്ങനെയുള്ള ഇതിനൊക്കെ ഏർപ്പെടാറുണ്ട് അതു തന്നെ അല്ലാതെ ഈ നമ്മുടെ പ്രദേശത്തെ ഈ കുടുംബ ശ്രീകൾ അങ്ങനെ സംഘങ്ങൾ അവർ വർഷികാഘോഷങ്ങളുടെ ഇത് വർഷികാഘോഷങ്ങളുടെ ആ ഒരു സമയത്തും ഇതേപോലെ കുട്ടികളുടെയാണെങ്കിലും ഓരോ പരിപാടികളൊക്കെ വെച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കുറച്ച് ആൾക്കാർ കൂടി ഒരുപാട് വിനോദ പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട്